ആരോഗ്യ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് വരുന്നുണ്ട് പിന്നെ ഫാമിലിയായിട്ട് മൊത്തത്തിലുള്ള രീതിയിൽ വരുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ യൂസ് ആവുക വന്നിട്ടില്ല ഇതുവരെയായിട്ടും കാരണം അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഫാമിലിയ്ക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുകായൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാർക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പം മ് മോ ഒന്നിലധികം ദിവസങ്ങളൊക്കെ അഡ്മിറ്റ് ആകുന്ന സമയങ്ങളിൽ അവർക്ക് കുറെ പ് ചിലവൊക്കെ ആകുന്ന സമയങ്ങളിൽ ഈ ഇൻഷുറൻസ് കാര്യങ്ങൾ ഉള്ളതു കൊണ്ട് കുറെ അധികം ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് കുറെ വന്നിട്ടുണ്ട് കാരണം നോക്കുമ്പോൾ എപ്പം എവിടെ നോക്കിയാലും കൊം ഇപ്പം ദിനംപ്രതി മരുന്നുകൾക്ക് ആണേനേം എന്ത് കാര്യങ്ങൾക്കാണേനും ഭയങ്കരമധികം ഒരു റെയ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനുണ്ട് ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സംഭവം കൊണ്ടു തന്നെ ഇപ്പം എല്ലാവർക്കും തന്നെ ഒരു ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് ഇതിപ്പം എല്ലാവരുടെയും ഒരു ഇപ്പം നമ്മുടെ ഫുഡ്സ് ഫുഡ്ഡും നമ്മുടെ ജീവിതശൈലിയും കാരണം കൊണ്ട് എല്ലാവർക്കും തന്നെ ഓരോ ഹെൽത്തിഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടാകും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അതേ നമുക്ക് ഉണ്ടാക്കുന്ന ഓരോ ആരോഗ്യപ്രശ്നങ്ങൾക്കും നമ്മൾ അഡ്മിറ്റ് ആകുന്നതും പിന്നെ ആക്സിഡൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ആകുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായി ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടും ഇപ്പം ഒരു ഇത്ര ദിവസത്തിൽ കൂടുതലൊക്കെ ആകുമ്പോൾ ഭയങ്കര അധികമായ ഒരു ഫിനാൻഷ്യലി ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോൾത്തന്നെ ഭയങ്കരമായിട്ടൊരു ചിലവ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം ആ സമയത്ത് ഈ ഇൻഷുറൻസ് കാര്യങ്ങൾ ഇവരുള്ളപ്പം നമുക്ക് അത്യാവശ്യം ആയ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് പെയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാകും